ഹലോ ഗുഡ് മോർണിംഗ് ആ അതെ അതെ അതെ പറഞ്ഞോളൂ എവിടെന്ന് ആയിരുന്നു മാവൂര് അല്ലേ ആ നമ്മൾ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങക്ക് ഇപ്പം ലഞ്ചിൻ്റെ ആണോ അതോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിരുന്നോ രണ്ടും വേണമായിരുന്നു അല്ലേ ആ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്നത് ഇടിയപ്പം അതുപോലത്തന്നെ പുട്ട് ദോശ ഭൂരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണ് വരുന്നത് ആ അതുപോല ഇല്ലേ കറിയായിട്ട് വരുന്നത് വെജിറ്റബിൾ കറീസ് ഉണ്ട് വെജിറ്റബിൾ കുറുമ കാര്യങ്ങൾ അങ്ങനെ ഒക്കെ ആയിട്ടുള്ളത് വരുന്നുണ്ട് ആ പിന്നെ നോൺവെജ് ആണെന്ന് ഉണ്ടെങ്കിൽ ചിക്കൻ ബീഫ് ഫിഷ് കറി അതുപോലത്തന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നത് അല്ലെങ്കിൽ ആണെങ്കിൽ ബിരിയാണി ഉണ്ടാവും മന്തി ഉണ്ടാവും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് കാണും സ്പെഷ്യൽ ബിരിയാണി ആണ് കേട്ടോ നമ്മുടെ നമ്മുടെ കടയുടെ സ്പെഷ്യാലിറ്റി ആണ് ആ അതിന് ബിരിയാണി ആയിട്ട് അങ്ങനെ വരുന്നുണ്ട് ആ ബൾക്കായിട്ടെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എത്ര പേർക്ക് ഉള്ളത് ആയിരുന്നു പതിനഞ്ച് പേർക്ക് അല്ലേ ആ കുഴപ്പം ഇല്ല അത് ഇവിടെ നമ്മൾ എത്ര പേർക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാവുന്നതേ ഉള്ളൂ അത് പ്രശ്നം അല്ല നിങ്ങൾക്ക് ഇല്ല മാവൂര് അല്ലേ പറഞ്ഞത് ആ അത് കുഴപ്പം ഇല്ല അതൊക്കെ നമുക്ക് ഇപ്പം ബൾക്ക് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഫ്രീ ഡെലിവറി നമുക്ക് കാര്യങ്ങളൊക്കെ ചാർജസൊന്നും ഇല്ലാണ്ട് ചെയ്തു തരാൻ പറ്റും ഓക്കെ അത് ഒന്നും ഇപ്പം പ്രശ്നമില്ല

ആ നമ്മൾ ഇപ്പം അതിൽ സാധാരണ നമ്മുടെ മെയിൻ ഡിഷസ് കാര്യങ്ങൾ എല്ലാം അതിലേക്ക് വരുന്നു എല്ലാം ഉണ്ട് അതായത് ജഡ്ജസ് ആയിട്ട് വരുന്നതാണ് അത് ഐസ്ക്രീംസ് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് വരുന്നതാണ് പിന്നെ നമ്മുടെ കടയുടെ സാധാരണ നോർമൽ ആയിട്ട് നമ്മുടെ കടയുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്നത് ബിരിയാണി ആണ് അതും ചിക്കൻ ചിക്കൻ ഐറ്റംസ് കാര്യങ്ങൾ ഗീ റൈസ് ഉണ്ട് ഗീ റൈസ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബീഫ് ആണെങ്കിൽ ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി ബീഫ് ഫ്രൈ മസാല അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഓക്കെ ഞങ്ങളിപ്പോൾ മോർണിംഗ് അൽഫാമ് നമ്മൾ ഉച്ച ആ ഒരു ലഞ്ച് ടൈമിനാണ് നമ്മൾ ഏകദേശം അങ്ങനുള്ള മറ്റെ അൽഫാമ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ആകുന്നുള്ളൂ ആ രാവിലത്തെ ആണെന്ന് ഉണ്ടെങ്കിൽ ഈ ഈ പറഞ്ഞ പോലെ ദോശ ഭൂരി പുട്ട് അങ്ങനത്തെ ഐറ്റംസ് നൂൽപ്പുട്ട് കാര്യങ്ങൾ അങ്ങനെ ഓക്കെ നിങ്ങൾ എത്ര പേര് പതിനഞ്ച് പേർക്ക് അല്ലേ പറഞ്ഞത് ആ ഓക്കെ ഓക്കെ നിങ്ങൾ ആ ഓർഡർ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഇല്ല നമ്മൾ എത്തിച്ചേരാ മാവൂര് അല്ലേ ആ ഒരു ബൾക്ക് ഓർഡർ ആണെന്ന് ഉണ്ടെങ്കിൽ വിഷയം അല്ല നമുക്ക് ചാർജസ് ഒന്നും ഇല്ലാതെ തന്നെ എത്തിച്ചുതരാൻ പറ്റും ഓക്കെ ഓക്കെ ആ നമ്മൾ ജ്യൂസ് ആ ഫ്രഷ് ജ്യൂസസ് ഉണ്ട് അതുപോലത്തന്നെ നിങ്ങൾ കോള അങ്ങനത്ത കാര്യങ്ങൾ ഒന്നും അല്ലല്ലോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്രഷ് ജ്യൂസ് കാര്യം ആ അതെ അത് ആപ്പിൾ ഉണ്ട് പൈൻ ആപ്പിൾ അങ്ങനെ കാര്യങ്ങൾ ജ്യൂസ് ഷേക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട് വേറെ ഏതാ വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തുതരാം എല്ലാ തരത്തിൽ ഉള്ളതും ഉണ്ട് നമ്മളേൽ ആ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അതിൽ മാംഗോ പൈൻആപ്പിൾ ആപ്പിൾ അങ്ങനെ ഏതിൻ്റെ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ എല്ലാ തരത്തിൽ ഉള്ള ആ ഓക്കെ കുഴപ്പം ഇല്ല നോക്കിയിട്ട് വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ

അത് കുഴപ്പം ഇല്ല നിങ്ങൾ അല്ല ആ നിങ്ങൾ അഥവാ പിന്നെ അങ്ങോട് എത്തിച്ചേരണമെങ്കിൽ എത്തിച്ചേരാം അല്ലാന്ന് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പറിൽ ഒരു ലൊക്കേഷൻ സെൻഡ് ചെയ്തുതരാം ആ അങ്ങനെ ആണെന്ന് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അങ്ങനെ ആണെങ്കിൽ വന്ന് പിക്ക്അപ്പ് ആ പിന്നെ ലൊക്കേഷൻ ഇട്ടു തരാം ഓക്കെ ശരി എന്നാൽ ഓക്കെ എന്നാൽ നോക്കിയിട്ട് ഒന്ന് ഓക്കെ താങ്ക്സ് എന്നാൽ ശരി